വിദ്യാർത്ഥികൾ അനവധി ഭാഷകൾ പഠിക്കേണ്ടത് സുപ്രധാനമാണെന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ജീവിക്കുകയല്ലല്ലോ മറ്റു പലവിധ ആവശ്യങ്ങൾക്കായി പല പല സലങ്ങളിലേകൊക്കെ പോകേണ്ടി വരുന്നുണ്ട് അപ്പം ചെല്ലുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലും ഒക്കെ ഈ മറ്റു ഭാഷകൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് അപ്പം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതിനും നമ്മൾ ചെല്ലുന്ന കാര്യങ്ങൾ നടക്കുന്നതിനും അവിടത്തെ കൾച്ചറുമായിട്ടും അവിടുത്തെ സൊസൈറ്റിയുമായിട്ട് ഇൻടറാക്റ്റ് ചെയ്യുന്നതിനൊക്കെ ഈ മറ്റു ഭാഷകൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്